നമ്മൾക്ക് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത പിന്നെ ആ വസ്തുക്കൾ ആണിപ്പോൾ നമ്മൾ പലതും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും പച്ചക്കറികളും പഴവർഗങ്ങളും നമ്മളുടെ സ്റ്റേറ്റിന് പുറത്തുനിന്നാണ് കൂടുതലായിട്ടും പച്ചക്കറികളും പഴവർഗങ്ങളൊക്കെ വരുന്നത് എല്ലാം വിഷം ഉള്ളതാണെന്ന് നമ്മൾക്കറിയാം എങ്കിലും നമ്മളതൊക്ക വാങ്ങി ഉപയോഗിക്കുന്നു അത് മാക്സിമം അത് ക്ലീൻ ചെയ്തും ഒക്കെ നമ്മളുപയോഗിക്കാറുണ്ട് എങ്കിൽപോലും അതിൻ്റെ അതിൻ്റെ ഒരു ഭാഗം വിഷാംശം ഒക്കെ നമ്മളുടെ ശരീരത്തിലൊക്കെ പ്രവേശിക്കുക തന്നെ ചെയ്യും ഇതിന് പരിഹാരമെന്നവണ്ണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി നമ്മുടെ ഉള്ള സ്ഥലത്ത് നമുക്ക് വീട്ടിലാവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഉൽപാദിപ്പിക്കുക എന്നുള്ളതാണ് അതിന് കഴിവതും ആൾക്കാരൊക്കെ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കാലാവസ്ഥയുടെയും ഒക്കെ കാരണവും വ്യത്യാസമൊക്കെക്കൊണ്ട് നമ്മൾക്കതിൽനിന്ന് കൂടുതലും ഫലങ്ങൾ കിട്ടുന്നില്ല അത് ആൾക്കാരെ ഈ കൃഷിയിൽ നിന്ന് പിന്നോട്ടടിക്കാനായിട്ട് കാരണമാവുന്നു അപ്പോൾ ചില കൃഷി ഉദാഹരണത്തിന് ഒരു പയർ മുളപ്പിക്കാൻ നോക്കിയാൽ ചില സമയത്ത് ആ വിത്തുകൾ മുളക്കുക പോലും ചെയ്യുന്നില്ല അപ്പോൾ മുളച്ച് നമ്മൾ മുളച്ചതുതന്നെ നമ്മൾ വളരെ നല്ല രീതിയിൽ അതിനെ പിന്നെ വളവും ജൈവവളം കൊടുത്ത് തന്നെ അതിനെ പോഷിപ്പിക്കാൻ അതു പിന്നെ നമ്മൾ കൊണ്ട് കുഴിച്ചിടുന്നു അത് പാകുന്നു അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തു അപ്പോൾ കുറേ അങ്ങോട്ട് അതിൻ്റെ ഇലകളൊക്കെ വന്നുകഴിയുമ്പോൾ പിന്നെ അതിനെ കീടങ്ങൾ വന്ന് അതിനെ അക്രമിക്കുന്നു അപ്പോൾ അതിന് നമ്മൾ വേറെ സാധാരണ ജൈവതരത്തിലുള്ള വിഷം കളയാനുള്ള മാർഗങ്ങളൊക്കെ നോക്കിയാൽപ്പോലും അതൊന്നും പൂർണമായിട്ട് വിജയിക്കുന്നതായിട്ട് കാണുന്നില്ല അങ്ങനെ നമ്മളുടെ ഈ ഉദ്യമങ്ങളൊക്കെ പരാജയപ്പെടുന്നതായിട്ടാണ് പലരുടെയും അഭിപ്രായം പിന്നെ കുറച്ചൊക്കെ കിട്ടിയാലായി കുറേയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊരു നമ്മളുണ്ടാക്കുന്ന പുകയില കഷായം പോലുള്ള കീടസ കീടനാശിനികളൊക്കെ അടിച്ച് നമ്മൾ രക്ഷപ്പെടുത്തി കുറേയൊക്കെ നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് ലഭിക്കും എങ്കിലും പണ്ടത്തെ രീതിയിൽ വിഷമടിക്കാതെ യാതൊരു പച്ചക്കറികളും നമ്മുടെ നാട്ടിൻപുറത്തിൽ നാട്ടുമ്പുറത്തും ഇപ്പോൾ ഉല്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല അതിന് എന്തെങ്കിലും പുതിയതായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്താൽ നന്നായിരിക്കും എല്ലാത്തരം പച്ചക്കറികളും അവനവൻ്റെ വീട്ടുവളപ്പിൽത്തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം പിന്നെ വളരുന്നവ പ്രത്യേകിച്ച് ഓമയ്ക്ക കപ്പളങ്ങ അതുപോലെ ഉള്ളതൊക്കെ മാത്രം നമ്മൾക്ക് എപ്പോഴും സുലഭമാണ് അതൊക്കെ കൂടുതൽ ഉപയോഗിക്കുക നാട്ടിൻപുറത്തുള്ള ചേന ചേമ്പ് അതുപോലുള്ളതൊക്കെ കൂടുതലായിട്ടുപയോഗിക്കുക പച്ചക്കറികൾ നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ മാക്സിമം പരിശ്രമിച്ച് നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ചെയ്തെടുക്കുവാനായിട്ട് നോക്കണം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഫലം കാട്ടാ ചെയ്യുന്ന കഷ്ടപ്പാടിനനുസരിച്ച് ഫലം കിട്ടാത്തതാണ് പലരെയും ഇങ്ങനെയുള്ള കൃഷി രീതിയിൽ നിന്നും പിറകോട്ട് പോവുന്നത് പലരും ഇതിനൊക്കെ വളരെ ഇൻട്രസ്റ്റ് എടുത്ത് എല്ലാം ചെയ്തുകഴിഞ്ഞാലും അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വിളവു ലഭിക്കാത്തപ്പോൾ അവർക്കു വിഷമം തോന്നുകയും പിന്നീടവർ അതിലേക്ക് തിരിയാതിരിക്കുകയും ചെയ്യാറുണ്ട്